ഹലോ ആരായിരുന്നു ഓക്കെ എന്തായിരുന്നു കാര്യം എന്തായിരുന്നു കേരളത്തിലെ ഫെസ്റ്റിവൽസ് ആണോ നിങ്ങൾ വരാൻ വേണ്ടിയാണോ നമുക്കിവിടെ ഒരുപാട് തിറ മഹോത്സവങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണാനാണോ അതോ പിന്നെ തൃശ്ശൂർപ്പൂരം അങ്ങനത്തെയെന്തെങ്കിലും കാണാനാണോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ആണല്ലെ അപ്പം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർപ്പൂരമുണ്ട് തൃശ്ശൂർപ്പൂരം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫെസ്റ്റിവൽ ആണ് തൃശ്ശൂർപ്പൂരം അപ്പോൾ നമുക്ക് തൃശ്ശൂർപ്പൂരം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആനകളും കാര്യങ്ങളും അതേപോലെ നമുക്ക് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെയായിരിക്കും അതു കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നിങ്ങൾ കുറച്ച് നേരത്തേയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കാണുകയൊക്കെ ചെയ്യാം ആനകളുടെ അതായത് പരിപാടി പിന്നെ അതുപോലെതന്നെ കുടമാറ്റം അങ്ങനത്തെ പരിപാടിയൊക്കെയേ ഇവിടെ തൃശ്ശൂർപ്പൂരത്തിനുണ്ട് പിന്നെ നമുക്ക് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഓ ഒരുപാട് ക്ഷേത്രത്തിൽ അതായത് തിരമഹോത്സവങ്ങൾ അതായത് ഗുളികൻതിറ അങ്ങനെയുള്ള തിറകൾ ഒരുപാടുണ്ട് ഹലോ ആ അപ്പോൾ തിറകൾ അങ്ങനെ ഉള്ളതൊക്കെയുണ്ട് ഇപ്പോൾ ഉത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കാവുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഉത്സവങ്ങളും ഇവിടെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ആ ഒരു ടൈമ് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒര് ഏപ്രിൽ വരെ ഏപ്രിൽ ലാസ്റ്റ് വരെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്സവത്തിൻ്റെ സീസൺ തന്നെയാണ് അപ്പോൾ പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മെയ്യൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്കില്ലാത്തെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണണമെങ്കിൽ നിങ്ങൾ എത്ര ദിവസത്തെ പാക്കേജിലാണ് നിങ്ങളിങ്ങോട്ട് വരുന്നത് മൂന്നു മാസത്തേക്കാണ് അപ്പം നിങ്ങൾ ഫെബ്രുവരി ഫസ്റ്റിന് വന്നോളു അപ്പോൾ കറെക്റ്റ് ഏപ്രിൽ ലാസ്റ്റ് ആവുമ്പോഴേക്ക് നമൾക്കെല്ലാം പരിപാടിയും കഴിയും പിന്നെ നിങ്ങൾക്കെല്ലാം ആസ്വദിക്കുകയും ചെയ്യാം നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോകാം നമുക്കിപ്പോൾ വയനാട്ടിലാണെങ്കിൽ വള്ളിയൂർക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മഹോത്സമുണ്ട് കോഴിക്കോടാണെങ്കിൽ നമുക്ക് ശ്രീ തളി ശിവക്ഷേത്രത്തിലെ മഹോത്സവമുണ്ട് പിന്നെ നമുക്ക് ഓരോ ജില്ലകളിൽ നിന്നാണെങ്കിൽ നമുക്ക് അടിപൊളി അതായത് നിങ്ങള് കാണാത്ത അതായത് വ്യത്യസ്ഥപരമായിട്ടുള്ള മഹോത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി ആ എന്നാൽ ഫെബ്രുവരി ഫസ്റ്റിന് വന്നോളു നിങ്ങൾക്ക് റൂംമ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ ബുക്ക് ചെയ്തു വയ്ക്കാം വണ്ടി സൗകര്യം അങ്ങനെയൊന്നുമില്ലെങ്കിൽ നമ്മളതും ചെയ്തു തരാം നിങ്ങൾക്കെന്ത് വേണമെങ്കിലും ഫുഡ് കാര്യങ്ങൾ എല്ലാം നമ്മൾ റെഡിയാക്കിത്തരാം നിങ്ങൾക്ക് അമ്പലത്തിൽ നിന്നുതന്നെ നല്ല അടിപൊളി ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിത്തരാം ഓക്കെ എന്നാൽ ഓക്കെ വരുമ്പോൾ വിളിക്ക് കേട്ടോ ആ ഓക്കെ ഓക്കെ